സ്കൂൾ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ എല്ലാവർക്കും സ്കൂൾ കാലഘട്ടത്തില് സ്റ്റാമ്പുകളൊക്കെ കിട്ടുവായിരുന്നു അതൊക്കെ ശേഖരിച്ച് വച്ച് നാണയങ്ങളും അതൊക്കെ ശേഖരിച്ച് വച്ചിട്ടുണ്ട് അതെന്താന്ന് അതിൻ്റെ മൂല്യങ്ങൾ എന്താന്ന് വച്ചാൽ അന്നത്തെക്കാലത്തെല്ലാം കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റുന്നുണ്ട് ആ നാണയത്തിലൂടെ പണ്ടുപയോഗിച്ചിരുന്ന നാണയങ്ങൾ ഇന്നത്തെ തലമുറക്കും കാണാം അതിങ്ങനെ ആയിരുന്നു അതില് പിന്നെ ചില നാണയത്തില് ചില ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് സ്റ്റാമ്പിലായ്ക്കോട്ടെ അന്ന് നടന്ന കുറെ കാലങ്ങള് മുമ്പുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതില് ആലേഖനം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്നും കാണാൻ നമുക്ക് സാധിക്കുന്നൂന്നാണ് അത് അ അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്